ഞങ്ങളുടെ പ്രദേശത്ത് സാധാരണ സംസാരിക്കുന്നത് മലയാളമാണ് ഈ ഇപ്പോൾ കൂടുതലും എല്ലാവരും അതിലാണ് കൂടുതലും കംഫോർട്ടബിൾ ആയിട്ട് തോന്നു നിക്കണ എന്ന് തോന്നുന്നു പിന്നെ എന്താ പറയുക നമ്മള് നമ്മള് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നോക്കുകയാണെങ്കിൽ മജോറിറ്റി ഇപ്പോൾ ഇംഗ്ലീഷായിട്ട് വരുന്നുണ്ട് അന്യഭാഷാസംസ്കാരം ഇവിടെ വരുന്നുണ്ട് അതേപോലെ തന്നെ ഞാൻ എന്താ കുറെ ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ നോക്കുന്നുണ്ട് അത് കൂടുതലും നല്ലതാണ് വരത്തുളളൂ കാരണം നമ്മൾ കൂടുതലൊക്കെ മലയാളം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇംഗ്ലീഷിലേക്ക് കൺവെർട്ട് ചെയ്യാൻ കുറച്ച് പ്രയാസം ആയിരിക്കും അതേപോലെ കൂടുതലും ഇംഗ്ലീഷ് ഭാഷ സംസാരിച്ച് തുടങ്ങുന്നത് നല്ലതാണ് തീർച്ചയായും കാരണം യുവജങ്ങൾ കുറെ ഒക്കെ ഇപ്പോൾ മലയാളം പഠി പഠി പഠിക്കാൻ മുന്നിട്ട് ഇറങ്ങി നിൽക്കുന്നവരുമുണ്ട് പിന്നെ അവര് അതില് എന്താ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കൂടുതലും മലയാളം സംസാരിക്കാൻ വരുന്നത് കുറവാണ് സൊ അതൊന്ന് ഇമ്പ്രൂവ് ആകാൻ ഇമ്പ്രൂവായിട്ട് വരുന്നുണ്ട് അതില് ഞാൻ എന്തായാലും അഭിമാനിക്കുന്നുണ്ട് പിന്നെ കൂടുതലും ഞങ്ങൾക്ക് ഒക്കെ ഇംഗ്ലീഷ് ലാംഗ്വേജാണ് ഞങ്ങളുടെ പ്രൊഫഷനും ജോലിക്ക് ആണെങ്കിലും ആവശ്യം വരിക സൊ നമ്മൾ അത് സംസാരിക്കാൻ പഠിക്കുന്നുണ്ട് അതുപോലെ കൂടുതലൊക്കെ ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷയാണ് കൂടുതലും സംസാരിച്ച് വരണതും